അങ്ങനെയുള്ള പരിപാടികളില് പോയിട്ടുണ്ട് മറ്റുള്ള ദൈവങ്ങൾക്കാണെങ്കിലും മതപരമായ കാര്യങ്ങൾക്കാണെങ്കിലും ചെന്നാലും അതിനോടെനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല നല്ലൊരു കാര്യങ്ങള് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരെ സഹായിക്കുക അതുപോലെ നമ്മളെകൊണ്ട് പറ്റുന്ന രീതിയില് ചെയ്യുക അതിന് മറ്റൊരു മതം വേറൊരു മതം എന്നൊരു രീതിയില് ഞാനിതുവരെയായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു അതാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം